ഉച്ചയൂണിനും അത്താഴത്തിനും ഞങ്ങൾ ചോറ് തന്നെയാണ് കൂടുതൽ കഴിക്കാറ് കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ ചോറാണ് കൂടുതലിഷ്ടം ചോറും ഉച്ചയ്ക്കത്തെ കറിയും പിന്നെ വൈകീട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാൻ രസമോ മോരോ അങ്ങനെ ചെറിയ എന്തെങ്കിലും കറികളൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് അല്ലാതെ ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ റിച്ച് ഫുഡ് ഒന്നുമല്ല സാധാരണ പിന്നെ ഇടയ്ക്കൊക്കെ രാത്രി ബിരിയാണിയുണ്ടാക്കും അല്ല അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഞങ്ങൾ ഒരുപാട് റിച്ച് ഫുഡ് ഒന്നും അങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത് ഡേ ഒക്കെ വരുമ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറേ പതിവുള്ളൂ പിന്നെ ആ ഉച്ചയൂണും അത്താഴവും എല്ലാം ഒരേ ഫുഡ് തന്നെ ആയിരിക്കും ചില ദിവസങ്ങളിൽ ചപ്പാത്തിയോ അല്ലെ രാവിലെ ദോശ മാവുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ രാത്രിയിൽ കഴിക്കുക അല്ലെ രാവിലെ ഉണ്ടാക്കിയ പുട്ട് ചിലപ്പം രാത്രിയിൽ കഴിക്കും എന്നാലും കൂടുതൽ ഞങ്ങൾ ചോറ് തന്നെയാണ് കഴിക്കുന്നത് ചോറാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അതിന് തോരൻ മെഴുക്ക് പുരട്ടി അച്ചാറ് മോര് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഉച്ചയൂണിന് കറി അവിയലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതു തന്നെ ആയിരിക്കും രാത്രിയിലും ഞങ്ങൾ കഴിക്കുക